ദിവസവും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകള് വാട്സാപ്പ് ഉപയോഗിക്കാറുണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കാറുണ്ട് ഫേസ്ബുക്കില് നമ്മള് റീൽസുകളൊക്കെ കാണാറുണ്ട് അതില് നമ്മളുടെ നമ്മുടെ ഒരു ലോകവീക്ഷണം എന്നുവച്ചാല് ഇപ്പം ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങള് നമുക്ക് ഗുണമുള്ള കാര്യങ്ങളുമുണ്ടായി അതിൽപിന്നെ ദോഷങ്ങളും ഉണ്ടാകാം എന്നാലും ഗുണമുള്ള കാര്യങ്ങള് എന്നുവച്ചാൽ നമ്മളിപ്പം കൃഷിരീതി ആണേലും നമുക്കറിയില്ല ഇന്ന ഇന്ന കാര്യങ്ങള് കൃഷി ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമുക്കൊന്നും ഇല്ല പക്ഷെ അത് ചെയ്തിട്ട് ഓരോരുത്തര് ഓരോ വീഡിയോ ഇടുംബം നമുക്ക് അത് ഉപകാരപ്രദമാണ് ഇന്ന ഇത്രെയൊക്കേ ഉള്ളല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമല്ലോ പിന്നെ അതുപോലെതന്നെ അവരും ചില വിത്തുകള് തരാം അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി അല്ലങ്കിൽ അവര് തൈകളെത്തിച്ച് തരാം എന്നൊക്കെ പറയാറുണ്ട് അപ്പം നമുക്ക് അതിലൂടെ അതൊക്കെ മേടിക്കാൻ പറ്റും നമുക്കതൊന്ന് പരീക്ഷിച്ചുനോക്കാനൊക്കെ പറ്റാറുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങള് ഒരുപാട് അടുക്കളയിലേക്ക് വേണ്ട ടിപ്സുകള് അതിൻ്റെ വീഡിയോസുകള് വരാ വീഡിയോസ് വരാറുണ്ട് പിന്നെ നമ്മളുടെ ഡെയിലി ലൈഫിൽ വേണ്ട ഒരുപാട് കാര്യങ്ങള് പിന്നെ ചില മോട്ടിവേഷൻ വീഡിയോസ് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട് പിന്നെ ചില കോഴ്സുകളെപ്പറ്റിയൊക്കെയുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ചില ജോലി ആ ജോലിയില് നമുക്ക് എങ്ങനെ കയറാം അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റർവ്യൂവിന് വേണ്ടി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതില് അനുഭവസമ്പത്തുള്ളവര് തയ്യാറാക്കിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അത് കുറച്ച് നമുക്ക് പറഞ്ഞുതരാൻ ആരുമില്ലാത്ത കുറെ കാര്യങ്ങള് നമുക്ക് അതിലൂടെയൊക്കെ ലഭ്യമാകാൻ തുടങ്ങിയിട്ടുണ്ട് അത് അതുപോലെതന്നെ നമുക്ക് ഇപ്പോൾ വസ്ത്രങ്ങളൊക്കെ ആണെങ്കിലും നമ്മളുടെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള വിലയിൽ കിട്ടുന്ന വസ്ത്രങ്ങൾ ലഭ്യമാകുന്ന കടകള് അല്ല അങ്ങനെയുള്ള ഓരോ സാധനങ്ങള് വീട്ടി വീട്ടുപകരണങ്ങളാണെങ്കിലും കുട്ടികൾടെ പഠന സഹായികളാണെങ്കിലും ചിലരൊക്കെ അത് ഉപയോഗിച്ച് അതിൻ്റെ റിവ്യൂ ഒക്കെ തരുമ്പോൾ അത് നമുക്ക് വളരെ ഉപകാരമായിട്ടാണ് തോന്നുന്നത് ഓരോ പ്രദേശത്തെ ഭഷണരീതികള് ആ ഭക്ഷണം എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നത് നമ്മള് ചിലപ്പോൾ അതൊക്കെ വലിയ സംഭവമാണ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുവിചാരിച്ചിരുന്ന കാര്യങ്ങള് വളരെ എളുപ്പമാണല്ലോ എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയില് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകള് നമ്മളെ മനസ്സിലാക്കിത്തരും അതും നമ്മുടെ ഒരു മുതൽക്കൂട്ടായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് പിന്നെ ചില ഗ്രുപ്പുകള് അതായത് ഇപ്പോൾ കൃഷിക്കുവേണ്ടി ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ നാട്ടറിവുകൾക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് അങ്ങനെ ഓരോ ഗ്രൂപ്പുകള് ഈ സോഷ്യൽ മീഡിയ വഴി വരുമ്പോൾ നമുക്ക് അതിലൂടെയും ഓരോരുത്തരുടെ അനുഭവങ്ങളെപ്പറ്റിയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകള് ഒരുപാട് തലത്തിലുള്ള അറിവുകൾ നമുക്ക് തന്നു എന്നാണ് എൻ്റെ ഒരു വീക്ഷണം വിശ്വാസം അതായത് ഓരോ തലത്തിലുള്ളവരെ പറ്റിയും ഓരോ പ്രദേശങ്ങളെപ്പറ്റിയും അറിവ് നൽകുന്നതിലും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിനും അത് സഹായിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനത് ഉപയോഗിക്കാറുണ്ട് സോഷ്യൽ മീഡിയയില് ഞാൻ ഫേസ്ബുക്കും ഞാൻ ഡെയിലി ഉപയോഗിക്കാറുണ്ട് അതുപോലെ വാട്സാപ്പ് മെസ്സേജുകൾ അയക്കാനും അതുപോലെ വീഡിയോ കോളുകള് ചെയ്യാനുമൊക്കെ വാട്സാപ്പ് ഞാൻ ഉപയോഗിക്കാറുണ്ട്